ഹലോ പറയൂ

ക്വാറന്റൈനിൽ ഇരുന്നിരുന്നോ ആഹ് അപ്പോൾ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണല്ലേ ഓക്കേ അവിടെ വേറെ ആർക്കെങ്കിലും പുറത്തു മാസ്കിടാണ്ട് മറ്റും പോയോ പുറത്തു പോയപ്പോൾ വല്ലതും വന്നതായിരിക്കും ആ അപ്പോൾ ഒന്നൂംകൂടി ടെസ്റ്റ് ചെയ്യാം ഒന്നുംകൂടി ടെസ്റ്റ് ചെയ്യാം ഒന്നുകൂടി കൊറോണ ടെസ്റ്റ് ചെയ്യാമെന്ന് മരുന്നെഴുതാം പിന്നെ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആൾ ഭക്ഷണം എങ്ങനെയാ എത്തിക്കുന്നത് അവർ ഒക്കെ അവർ മാസ്കിടണം എന്നു പറയണേ സാനിറ്റൈസർ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് മാത്രമേ പിന്നെ പാത്രം എടുക്കാൻ പാടുള്ളൂ അപ്പോൾ മരുന്ന് ഞാനെഴുതിത്തരാം അപ്പോൾ കൊറോണ കുറേ കുറെ ദിവസമായോ ഇത് തുടങ്ങിയിട്ട് പോസിറ്റീവ് ആണെന്നറിഞ്ഞിട്ട് കുറേ ദിവസം ആയിരുന്നോ പോസിറ്റീവ് ആണെന്നറിഞ്ഞിട്ടു കുറേ ദിവസമായിരുന്നോ നിങ്ങളപ്പോൾ ഇത്ര ആയിട്ട് ഡോക്ടറെ ഒന്നും കാണിച്ചില്ലായിരുന്നോ ഓക്കേ ഓക്കേ നിങ്ങളെവിടെയായിരുന്നു കാണിച്ചത് എവിടെയാണ് കാണിച്ചത്

ആഹ് അതിനുള്ള മരുന്നും ഇതാക്കാം പിന്നെ ആവി പിടിക്കണം ആവി പിടിക്കുക അതേപോലെ മാസ്കിടുക ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് എടുക്കാൻ പോവുകയാണെങ്കിലോ

അല്ല അപ്പോൾ ആവി പിടിക്കുക അങ്ങനെ ചെയ്യുക അതേപോലെ ടെസ്റ്റ് ചെയ്യണം ഒന്നും കൂടി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നു കൂടി കുറവുണ്ടെങ്കിൽ വിളിക്കുക കുറവില്ലെങ്കിൽ ഒന്നു പറയണേ ഓക്കെ ആ ശരി